ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്നത് പിന്നെ പിന്നാ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ അസ്ഥിയിരിക്കുന്ന ഗോവയും അതുപോലെതന്നെ തോമാസ്ലിഹയുടെ അസ്ഥിയിരിക്കുന്ന ചിന്നമല അതായത് പിന്നെ ഇവിടുത്തെ ചെന്നൈയിലെ പിന്നെ വേളാങ്കണ്ണി മാതാവ് അതും തമിഴ് നാട്ടിലാണല്ലോ പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ പിന്നെ നമ്മുടെ എടത്വ പെരുന്നാൾ അല്ലെങ്കിൽ എടപ്പള്ളി ഇങ്ങനെ പല കേന്ദ്രങ്ങളുണ്ട് പിന്നെ ഇന്ത്യയിൽ ഉള്ളത് പ്രധാനമായിട്ടും നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും സുപരിചിതമായത് ഈ നാല് കാര്യങ്ങളാണ് കാരണം വേളാങ്കണ്ണി സന്ദർശനം ഇനി അവിടുത്തെ ആഘോഷങ്ങളെക്കുറിച്ച് നോക്കുമ്പം വേളാങ്കണ്ണിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം അതുപോലെതന്നെ ഈ ഗോവയിൽ ഇതു നമ്മുടെ ഫ്രാൻസിസ് സേവിയറിൻ്റെ അസ്ഥി ഇരിക്കുന്ന സ്ഥലം അപ്പോൾ അതുപോലെതന്നെ പിന്നെ തോമാസ്ലിഹ മരിച്ചസ്ഥലമാണ് ചിന്നമല അപ്പോൾ അതുപോലെതന്നെ നമ്മുടെ കേരളത്തിലെ മലയാറ്റൂർ പോകുന്നവരുണ്ട് ഇങ്ങനെ വിവിധ അവിടെയൊക്കെ ഓരോ അവരുടേതായ ഫീസ്റ്റ് ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഓക്കെ